എന്നുവച്ച് കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഫുട്ബോൾ കളി തന്നെയാണ് പറയാനുള്ളത് നമ്മളെ സ്വാധീനിച്ചിന് ഞമ്മള് രാത്രി ടി വിയിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള കളിയാണ് നമുക്ക് ഓരോ കളിക്കാരുടെ ഇത് കണ്ടിട്ടാണ് നമുക്ക് സ്വാധീനം ചെലുത്തിയത് ഓരോ കളിക്കാരെ ഫേവറേറ്റ് കളിക്കാരുണ്ട് മെസ്സി അങ്ങനത്തെ മെസ്സീൻ്റെ ഒക്കെ കളി കണ്ടിട്ടാണ് നമുക്ക് ഫുട്ബോൾ കളി ഇങ്ങനെ കണ്ടിട്ടാണ് അതിനോട് ഒരു കമ്പം കൂടിയതും അങ്ങനെ കളിക്കാൻ ഒക്കെ ആയിട്ട് പോയതും ഇത് ഇങ്ങനെ ടി വിയിലും ഇതിലും ഒക്കെ ആയിട്ട് അവരെ കളികൾ കണ്ട് അതാക്കി അപ്പോൾ അതേപോലെ വരണം അങ്ങനെ കളിക്കാൻ ഒക്കെ ആയിട്ടാണ് പിന്നെ നമ്മള് ഇങ്ങനെ ചെറിയ ടീമ് തന്നെ ഇങ്ങനെ കളിക്കാൻ ഒക്കെ ആയിട്ട് ഇറങ്ങിയത് അങ്ങനെ അത് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെയായിട്ട് തട്ടാൻ തുടങ്ങി പിന്നെ അതെന്റെ ഒരു ആവേശമായി പിന്നെ അതൊരു നല്ലൊരു നേട്ടം കൈവരിക്കണമെന്നുള്ള അവസ്ഥയിലായി കളി അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഓരോ മത്സരങ്ങളിലും ഇതിലൊക്കെ പോയിട്ട് വല്ലാണ്ടായി അപ്പോൾ അങ്ങനെ ആ കളിയോട് വല്ലാത്തൊരു അനുകമ്പ തോന്നി പിന്നെ ഏത് മഴയത്ത് ആണെങ്കിലും ഫസ്റ്റ് ടൈം ഫസ്റ്റ് തന്നെ എല്ലാ എല്ലാ ടൈമിലും ആ ഗെയിംസിനോട് മാത്രം ഇമ്പോർട്ടന്റ് കൊടുക്കാൻ തുടങ്ങി ബാക്കിയുള്ളതൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിച്ചു